എനിക്ക് ഇവിടെ പൂന്തോട്ടമുണ്ട് പൂന്തോട്ടത്തിൽ പനിനീർ ജമന്തി എല്ലാ ചെടികളുണ്ട് അതിന് മൊട്ട് ഉണ്ടാകുമ്പോഴേക്കും അങ്ങോട്ട് മൊട്ട് ഉറമ്പൊക്കെ തിന്ന് അങ്ങോട്ട് ചുരുണതാണ് അതിന് ഞാൻ മഞ്ഞൾപ്പൊടി ഇടും പിന്നെ കഞ്ഞി വെള്ളം പുളിപ്പിച്ചിട്ട് അത് നല്ലോണം വെള്ളം ചേർത്ത് തളിക്കും പിന്നെ വളങ്ങളായിട്ട് മുട്ടത്തോട് പൊടിച്ച് നല്ലോണം ഓരോ സ്പൂണെല്ലാം ചെടികൾക്കും കൊടുക്കും നല്ല പൂക്കളുണ്ടാകും നല്ലോണം വളങ്ങൾ ചാണകപ്പൊടി ജമന്തിക്ക് ജമ്മന്തിയും പല കളറുള്ള ചെടികളും ഉണ്ട് അതിനൊക്കെ വളങ്ങളിട്ട് കൊടുക്കും കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് നാല് ദിവസമെടുത്ത് വച്ച് അതിൽ വെള്ളം ഒഴിച്ച് നല്ലോണം നേർപ്പിച്ച് ഒഴിക്കും പിന്നെയങ്ങനെ കൊതുകും കീടങ്ങൾ എല്ലാം അതിങ്ങനെ അതാക്കിയിട്ട് എല്ലായിതും വന്ന് ഇങ്ങനെ വിരിയാനായിട്ടുള്ള മൊട്ട് അങ്ങനെ ഉറുമ്പുകൾ തിന്നിട്ട് അപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അതൊക്ക മാറി നല്ല പൂക്കളായിട്ടിങ്ങനെ വരും എല്ലാ ചെടികളും അങ്ങനെത്തന്നെയാണ് വേനലിൽ നല്ല ഭംഗിയാണ് എല്ലായിതും വിരിഞ്ഞ് നിൽക്കുമ്പോൾ വേനൽക്കാലത്താണ് നല്ല പൂക്കളുണ്ടാവുക വേനലിലേക്ക് വേണം നല്ല ചെടികൾ